ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നിന്ന് ഒരു ബ്ലൂ ടൂത്ത് ഹെഡ് സെറ്റ് മേടിച്ചായിരുന്നു അപ്പം നല്ല വോയിസ് ക്ലാരിറ്റി ഉണ്ട് നല്ലൊരു പ്രൊഡക്റ്റാണ് ചാർജ് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഞാനത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതുകൊണ്ട് എനിക്കതിൻ്റെ പകുതി വിലയിൽ സാധനം പർച്ചെയ്സ് ചെയ്യാൻ സാധിച്ചു ഇപ്പം കടകളിലൊക്കെ ചെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ പൈസയും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം എൻ്റെ ഒരഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഓൺലൈനിൽ നിന്ന് ബ്ലൂ ടൂത്ത് ഹെഡ് സെറ്റ് മേടിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരഭിപ്രായം നല്ല പെർഫോമൻസ് തരുന്നുണ്ടത്